നർത്തകർ ഈ ഒരു കാലഘട്ടത്തിൽ നർത്തകർ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹപ്രവർത്തകർ എന്നുപറയാൻ പറ്റില്ല സദാചാര പ്രവർത്തകരിൽ നിന്നും വളരേയധികം ബുദ്ധിമുട്ടുകളൊക്കെ അവരനുഭവിക്കുന്നുണ്ട് കരണമെന്തന്നുവെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിലുള്ള ഡാൻസെസ്സാണ് ഇവിടുള്ളത് ഒന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിക്കൽ ഒന്ന് വെസ്റ്റേൺ അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ക്ലാസ്സിക്കൽന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവരു കലാഭവനിലൊക്കെ ചെന്നു പഠിച്ച് അങ്ങനോരിതാണ് വെസ്റ്റേൺ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിങ് സ്കൂൾസ് വേറെ വെസ്റ്റേൺ ഡാൻസിങ് സ്കൂൾസ്സായിരിക്കും ഇപ്പം നടന്നുവരുന്നത് എന്താന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിക്കൽനു കൂടുതലും പകലായിരിക്കും എന്താ പ്രോഗ്രാംസ്സോക്കെ വരുന്നത് അതും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ കുറയേ ആൾക്കാരൊക്കെയുണ്ടാവും അങ്ങനെ ചെന്ന് മേക്കപ്പ് ചെയ്ത് അത്രേയും എന്താ പറയുക അത്രയ്ക്കുമിതിൽ കളിക്കുന്നെയാണ് ക്ലാസ്സിക്കൽന്നു പറഞ്ഞത് പക്ഷേ വെസ്റ്റേൺ നോക്കീട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും നൈറ്റ് പ്രോഗ്രാംസ് ആയിരിക്കും വരുന്നുണ്ടാവുക ക്ലാസ്സിക്കൽനു നൈറ്റ് വരുന്നില്ലന്നല്ല ക്ലാസ്സിക്കൽനു നൈറ്റ് വരുന്നത് ഉത്സവങ്ങൾ അതേപോലെ ഇല്ലെങ്കിൽ വാർഷികങ്ങൾ സ്കൂൾസിലൊക്കെ അങ്ങനെവരുമ്പോഴാണ് നൈറ്റ് പ്രോഗ്രാം വരുന്നത് പക്ഷേ വെസ്റ്റേൺ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഡേ പ്രോഗ്രാംസ് കുറവായിരിക്കും കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പബ്ലിക്കായിട്ട് നിന്ന് കളിക്കുക അങ്ങനെത്തെ ഇതൊക്കെയായിരിക്കും സ്റ്റേജ് പ്രോഗ്രാംസ് ഫുൾ നെറ്റായിരിക്കും വരിക അപ്പം അങ്ങനെവരുന്നൊരു ടൈമിലു ഇപ്പോൾ ക്ലാസിക്കൽ ആൾകാരാണെങ്കിൽ പോലും അവരു പോകുമ്പോളൊക്കെ അവരു ആ ഒരു ഡ്രസ്സ് സെൻസിലാണ് പോവുന്നത് ഫുൾ സാരി മോഡല് പക്ഷേ വെസ്റ്റേൺ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈപ്പിലാണ് പോകുന്നത് പക്ഷേ അപ്പോൾ അവരു ചിന്തിക്കും ഇവളുമ്മാരു എങ്ങോട്ട് പോകുന്നു ഈ അപ്പോൾ ഈ നെറ്റിലു അങ്ങനെ പക്ഷേ കൂടെയുള്ള ആൾക്കാരെയൊക്കെ അവരു ഭയങ്കരായിട്ട് വൾഗറായിട്ടേ ചിന്തിക്കത്തുള്ളൂ അതേപോലെതന്നെ എൻ്റെയൊരു ആ ഒരു നർത്തകൻ എന്നുതന്നെ പറയാം അദ്ദേഹം എന്നുപറയുമ്പം അദ്ദേഹത്തിനൊരു പാഷൻ തന്നെയായിരുന്നു ഡാൻസിങ് എന്നുപറയുന്നത് പക്ഷേ ആ ഫാമിലിയിൽ നിന്ന് അതിനു തീരെ സപ്പോർട്ടീവ് അല്ലായിരുന്നു അവരെല്ലാം അതിനെ റിജെക്റ്റീയുന്ന ആൾകാരായിരുന്നു സൊ ചേട്ടൻ പിന്നെ ഐ മീൻ സോറി സാറിങ്ങനെ ഇങ്ങനെ ചെയ്യാനായി പോവുമ്പൊത്തന്നെ പഠിക്കണം എന്ന ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ തന്നെ അവരതു കണ്ണുംപൂട്ടി റിജെക്റ്റ് ചെയ്തു പറ്റില്ല നിനക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിക്കാൻ പോയാഎൽ മതി അതേപോലെ അങ്ങനെ രണ്ട് ജോലിയെടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഉപകാരം ഉണ്ട് ഒക്കെ അങ്ങനെ ആ ഒരു ടോക്കാണ് വരുന്നത് അപ്പോൾ ചേട്ടനൊക്കെ വീട്ടുകാരുടെ താല്പര്യത്തിനു വഴങ്ങി ജോലിക്കു പോയി ജോലിക്കു പോയി അദ്ദേഹം ജോലിയെടുത്തു എടുത്തിട്ട് മറ്റേ എടുത്തു എടുത്തതിനു ശേഷം അദ്ദേഹം എന്താ പറയുക അതിനകത്തൂന്ന് പകുതി ക്യാഷ് വീട്ടിലേക്കയച്ചു പകുതി ക്യാഷ് കൊണ്ട് ഡാൻസ് സ്കൂളിൽ പോയി അദ്ദേഹം അത്രയും ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്തിട്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് എന്താ പറയുക ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്തിട്ട് പഠിച്ചു ഇപ്പൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ജോബ് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡാൻസിൽ തന്നെ അദ്ദേഹം പാഷൻ ആക്കി എടുത്തു ഇപ്പൊ ഹി ഈസ് എ ഡാൻസ് മാസ്റ്റർ നമ്മൾ ലോഹമെമ്പാടും ഫ്ലവർസ് ചാനലിൽ കാണുന്ന സ്റ്റാർ മാജിക് എന്നുപറയുന്ന പ്രോഗ്രാമിൻ്റെ ഡാൻസ് കോച്ച് അല്ലെങ്കിൽ ഡാൻസ് മാസ്റ്ററാണ് ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല സൊ അദ്ദേഹം നമ്മൾ ആ ഒരു രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളീനെ മനസിലാവും അപ്പൊ അങ്ങനെ ജീവിത സാഹചര്യങ്ങളിൽ ഡാൻസ് പാഷൻ ആക്കികൊണ്ട് നടക്കുന്നവരുണ്ട് അതിന്റിടയ്ക്ക് സദാചാരക്കാരൊന്നും ഒന്നുമല്ല